ഓരോ ചെടികൾക്ക് ഓരോ തരം സ്വഭാവങ്ങളാണ് അത് ചില ചെടികള് വെള്ളം കൂടുതല് വേണം ചില ചെടികൾക്ക് അധികം വെള്ളം വേണ്ട ആ ഒരാഴ്ച എല്ലാം കഴിയുമ്പം മാത്രം വെള്ളം ഒഴിച്ചാ മതി പിന്നെ വെയിലത്ത് അധികം വെയില് കൊള്ളുന്ന ചെടികളുണ്ട് വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളുണ്ട് പിന്നെ ഓവറ് വെള്ളം ഒഴിച്ചാൽ ചീഞ്ഞ് പോകുന്ന ചെടികളുണ്ട് പിന്നെ അതെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൂടുമ്പോൾ ഒക്കെ വെള്ളം ഒഴിക്കാൻ പാടുള്ളു എന്നെന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചിലത് ഓവറ് വെയിലത്ത് വെക്കാനും പാടില്ല ചില ചെടികൾക്ക് നല്ല വെയില് വേണം ചില ചെടികൾക്ക് അധികം വെയിലും വേണ്ട അങ്ങനെയാണ് അങ്ങനെയാണ് ചെടികളുടെ ഗുണങ്ങള്